അഭിമാനകരമായ നേട്ടം എന്ന് പറയുന്നത് പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൗട്ടിൽ രാജപുരസ്കാർ നേടിയതാണ് അഭിമാനകരമായ നേട്ടമായിട്ട് തോന്നുന്നത് അത് എന്തെണെന്ന് വെച്ചാൽ സ്കൂളിനും അഭിമാനമായിരുന്നു അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് നാട്ടുകാരൊക്കെ അതുപോലെ വീട്ടിലുള്ളവരൊക്കെ എല്ലാവർക്കും നല്ലൊരു അഭിമാനം കിട്ടുന്നൊരു കാര്യമാണ് കാരണം തൻ്റെ മകൻ ഇല്ലെങ്കിൽ തൻ്റെ സ്കൂളിലത്തെ വിദ്യാർത്ഥി രാജപുരസ്കാർ എക്സാമിൽ പാസ്സാകുന്നു രാജപുരസ്കാർ എന്ന ഇത് കിട്ടുന്നു എന്ന് വളരെ അഭിമാനമുള്ള ഒന്നാണ് അതുകൊണ്ടു തന്നെ അതുതന്നെയാണ് ഏറ്റവും നല്ല നേട്ടം എന്ന് പറയാനുള്ളത് പിന്നെ ചെറിയ ചെറിയ നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ട് അതൊന്നും ഇതിനു വെച്ചല്ല ഇത് തന്നെയാണ് പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല നേട്ടം